പടം വരയ്ക്കുന്നത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദ്യകൾ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് ശരിക്കും ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചർ ആണ് എന്നെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചത് നമ്മുടെ ഉള്ളിലെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ നമ്മുടെ അധ്യാപകർ അതുപോലെതന്നെ നമ്മുടെ മാതപിതാക്കളൊക്കെ ചെയ്തു തരുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് ഓൺലൈനിലാണെങ്കിലും സ്കൂളുകളാണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് അവൈലബിളാണ് സോഷ്യൽ മീഡിയയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഏതൊക്കെ രീതിയിൽ വരയ്ക്കണം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പെൻസിലുകൾ തന്നെ പല വിധത്തിലുള്ള ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ പല വിധത്തിലുണ്ട് കാരിക്കേച്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി വ്യത്യസ്ത രീതിയിലുള്ള സോഴ്സുകൾ നമുക്ക് അവൈലബിളാണ് ഓൺലൈനിൽ കുട്ടികൾക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കയെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതിൻ്റെ ഒരു ആദ്യപാടം എന്നു പറയുന്നത് കുട്ടികളിൽ വരയ്ക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെയാണ് എന്നെ സഹായിച്ച കാര്യങ്ങൾ എന്നു പറയുന്നത് ടീച്ചർമാർ ചെറിയ ക്ലാസ്സിൽ പെൻസിലും പേപ്പറുമൊക്കെ തന്നിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിനോടൊരു കൗതുകം തോന്നും നമുക്കതിനോടൊരു ഇഷ്ടം തോന്നും അങ്ങനെയാണ് പടം വരയിലേക്ക് കൂടുതുൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ കൂടുതലായിട്ട് നമുക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് അപ്പോൾ വരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിളാണ് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പടം വരകളും മെച്ചപ്പെടുത്താൻ പറ്റും നമുക്ക് അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്